എഴുതാനാഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് അല്ലെങ്കില് എന്തേലും പറയണമെന്നാഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗീക ചൂഷണം അത് വലിയൊരു വിഷയം തന്നെയാണ് സ്ത്രീകൾക്കെന്നല്ല കൂടുതലായിട്ട് കുട്ടികൾക്കെതിരെ അതിനെക്കുറിച്ചിപ്പോൾ നമ്മള് എഴുതാൻ പാടില്ലായെന്നല്ല നമ്മള് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എപ്പാം പേപ്പർ എടുത്ത് നോക്കിയാലും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഇതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമം ഇപ്പം ഇന്ത്യയിലെന്ന് പറഞ്ഞെങ്കില് ഇപ്പം നമുക്കറിയാം നിർഭയ കേസ്സ് ഒത്തിരി ഒത്തിരി ഒന്നും നമുക്കതൊന്നും പറയാനേ പറ്റില്ല അതുപോലെയാണ് നമ്മുടെ പെൺകുട്ടികൾക്കൊന്നും ഒരു സുരക്ഷിതത്ത്വവുമില്ല നമ്മുടെ പെൺകുട്ടികള് വീടുകളിൽ പോലും സുരക്ഷിതരല്ല ആ ഒരവസ്ഥയിലാണ് അപ്പോൾ എന്നാ ഞങ്ങളുടെ ഇവിടെ ഇപ്പം നമ്മുടെ ഗോവിന്തച്ചാമിയെന്ന് പറയുന്ന ഒര് വ്യക്തി ഒര് കൈയ്യേ ഉള്ളു എന്നിട്ടാണയാൾ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ അക്രമിക്കുകയും ട്രെയ്നിൽ നിന്ന് തള്ളിയിട്ട് പ്രാണരക്ഷാർത്ഥം ചാടി അങ്ങനെ ആ കുട്ടി മരിയ്ക്കുകയും ചെയ്തു ഇപ്പൊഴും അദ്ദേഹം ആ പുള്ളി അദ്ദേഹമെന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പാടില്ല ആ പുള്ളി ഇപ്പോളും എന്താ പറയുക തടവ് പുള്ളിയായിട്ട് വിചാരണത്തടവ്കാരനായിട്ട് ഇപ്പഴും ജയിലിൽ കഴിയുകയാണ് അതായത് നല്ല സുഭിക്ഷമായിട്ട് ഫുഡ് കഴിച്ച് സുഖസുന്ദരമായിട്ട് കഴിയുകയാണ് നല്ല ആരോഗ്യദൃഢഗാത്രനായിട്ട് തിരി കഴിയാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വന്നതോ അയാൾക്ക് വേണ്ടി വാദിക്കാൻ വന്നതാരാ അപ്പം നമ്മുടെ നിയമം അങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്നും നമുക്കെഴുതാൻ പറ്റില്ലല്ലോ ഏ അതിനെക്കുറിച്ച് നമുക്കിങ്ങനെ പരസ്പരം പറയാനേ പറ്റുകയുള്ളു നമുക്ക് ഒച്ച ഉയർത്താൻ പറ്റില്ല കൂടുതലായിട്ടിപ്പോൾ സ്ത്രീസുരക്ഷ അതും കുട്ടികൾക്ക് മേലുള്ള അതിക്രമം അതിലും കഷ്ടമാണ് അതായത് ഒര് വയസായ അല്ലെങ്കിൽ ജനിച്ച് വീണ ഒര് പെൺകുട്ടി പോലും സുരക്ഷിതയല്ല സുരക്ഷിതരല്ല ഒരു ജനിച്ചുവീണ ഒരുദിവസം അല്ലെങ്കിൽ ആ പെൺകുട്ടിയെപ്പോലും വേറൊരു കണ്ണിൽ കൂടെയാണ് നമ്മുടെ മനുഷ്യർ ഇന്നത്തെ കാണുന്നത് അതായത് അച്ഛനായി കരുതേണ്ട ആൾക്കാര് തന്നെ മക്കളുടെ മാനത്തിന് വില പറയുന്നു ആങ്ങളമാര് മാനത്തിന് വില പറയുന്നു പെൺകുട്ടികളുടെ മാനത്തിന് അപ്പം അങ്ങനെ ഉള്ളൊരു സമൂഹമാണ് നമ്മുടെ അ പിന്നെ വരുന്ന വേറൊര് വിഷയമെന്ന് പറയുന്നത് എഴുതാനാഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ലഹരി മയക്ക് മരുന്ന് മാഫിയ അതിനെ ഒരിക്കലും നമുക്ക് തൊടാൻ പറ്റത്തില്ല ഇത് കാരണം അവരെ തൊടാൻ പറ്റത്തില്ല അവര് തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര വില്ലന്മാരായിരിക്കും നമുക്കൊന്നും എഴുതാനത് അവരെയൊന്നും തൊട്ട് നോക്കാൻ പറ്റത്തില്ല അതിലേക്കൊന്നും നമുക്ക് പോകാനെ പറ്റില്ല അവിടെ ഇവിടെയൊക്കെ ലഹരിവേട്ട മയക്ക് മരുന്നൊക്കെ പിടിച്ചു എന്ന് കേൾക്കുമ്പം കുറച്ച് നാള് നമ്മുടെ വാർത്തകളിൽ അപ്പം എന്തോന്നാ പറയുന്നത് പേപ്പറിൻ്റയൊക്കെ ദിനപ്പത്രങ്ങളുടെ ഒക്കെ മുഖ ഫ്രണ്ട് പേജിലും അത് കുറെ നാള് ടീവിയിലുമൊക്കെ ഭയങ്കര വലിയ ഹെഡ്ലൈൻസ്സോട് കൂടി ഇതൊക്കെ വരുന്നു പിന്നീട് കുറച്ച് നാള് കഴിയുമ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ മാഞ്ഞ് മാഞ്ഞ് ആ ഫ്രണ്ട് പേജിലുള്ള വാർത്ത വാർത്ത സെക്കെൻഡ് പേജിലേക്ക് പോകുന്നു സെക്കെൻഡ് പേജിൽ നിന്ന് ചെറിയൊരു കോളങ്ങൾലേക്കായിട്ട് പോകുന്നു അങ്ങനതിൻ്റെ പ്രാധാന്യം കുറയുന്നു അപ്പോഴേക്കും വേറെ എന്തേലും വാർത്തകള് കിട്ടുന്നുണ്ടാവാം അപ്പം അങ്ങനെ പോകുന്ന ഈ ലഹരി മാഫിയകളെക്കുറിച്ചും എഴുതണമെന്നുണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി പറയണമെന്നുണ്ട് പക്ഷെ പറ്റില്ല നമുക്ക് കാരണം അതങ്ങനെയാണ് ലഹരിമാഫിയ എന്ന് പറയുന്നത് വലിയ ഉന്നതരുടെ കൈയിലിരിയ്ക്കുന്ന സംഭവം തന്നെയാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ ഓരോ കുട്ടികളും കടന്നുപോകുന്ന മേഖല ഇതെന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമാണ് കൊച്ച് കുട്ടികള് വരെ അതിൻ്റെ കാരിയേഴ്സ്സായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നവർക്കറിയില്ല പിന്നെ കുട്ടികൾക്ക് പൈസക്കാവശ്യം കാരണം ഇന്നത്തെ മോഡേൺ ലൈഫിൽ ഓരോരുത്തർ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾക്ക് ആ പൈസ കിട്ടും അപ്പം ഇത്രയും പണി ഇത് ചെയ്താൽ മതി ഇതിവിടെ കൊണ്ട് കൊടുത്താൽ മതി ഇന്ന ആൾക്ക് കൊടുത്താൽ മതിയെന്ന് പറയുമ്പം അവരും ഓട്ടോമാറ്റിക്ക്യലി പൈസക്ക് വേണ്ടിയിട്ട് അവരും ചെയ്യുന്നുണ്ട് കാരണം ഇന്നത്തെ ആർഭാടജീവിതം നയിക്കുന്നതിനായിട്ട് നല്ല ഐ ഫോണും അങ്ങനെയുള്ള ബുള്ളറ്റുകളും വണ്ടികളും നല്ല വിലകൂടിയ വണ്ടികളൊക്കെ ചെത്തിനടക്കുന്നതിന് വേണ്ടിയിട്ട് മക്ക നമ്മുടെ മക്കളങ്ങനെ ചെയ്തുപോകുന്നുണ്ട് അപ്പോൾ ഈ ലഹരിമാഫിയയെക്കുറിച്ചും അത് പോലെ നമ്മുടെ ഇത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമതിനെക്കുറിച്ചൊക്കെ എഴുതണമെന്നുണ്ട് പിന്നെ വരുന്നത് ഭിക്ഷാടനമാഫിയ അതിനേക്കുറിച്ചും ഭയങ്കരപേടിയുള്ള സംഭവം തന്നെയാണ് കാരണം നമ്മുടെ കുട്ടികള് കൺവെട്ടത്തുനിന്നാണ് നമ്മുടെ കുട്ടികളെ കാണാതാകുന്നത് ഇവരൊക്കെ എവിടേക്ക് പോകുന്നു എന്താ ഒരറിവുവില്ല അപ്പം അങ്ങനെ വരുന്ന ഇതിലും ഭയങ്കരമായിട്ട് വിഷമമുള്ള സംഭവമാണതും കൊച്ച് കുട്ടികളൊക്കെയുള്ള അമ്മമാരാണ് ഞങ്ങളും അപ്പം ആ ഒരു ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തന്നിരിക്കുന്ന ഒരു വലിയൊരു തലവേദന തന്നെയാണ് ഈ ഭിക്ഷാടനമാഫിയ എന്ന് പറയുന്നത് കാരണം കൊച്ചുകുട്ടികളെ നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞമാതിരി കൺവെട്ടത്ത് നിന്നാണ് നമ്മൾ കാ തട്ടിക്കൊണ്ടുപോകുന്നതും ഭിക്ഷാടനമാഫിയ തന്നെയല്ലാട്ടൊ ഇപ്പോൾ വാർത്തകളൊക്കെ എടുത്തുനോക്കിയാൽ കുറച്ച് നാള് മുന്നെവരെ എന്താ പറയുക വീട്ടുകാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു കോച്ചിനെ തട്ടിക്കൊണ്ട് പോയ കേസക്കെ കുറച്ച് നാൾ മുന്നിലെ നമ്മുടെ കൊച്ച് കേരളത്തിലാണ് നടന്നത് അപ്പോൾ അതും ഈ മൂന്ന് വിഷയങ്ങളും ഇത്തിരി സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങള് തന്നെയാണ് എഴുതുവാനാഗ്രഹമുള്ള വിഷയങ്ങളാണ് പക്ഷേ എഴുതുവാൻ പേടിയൊ പേടിയുമുള്ള വിഷയങ്ങളാണ്